ഞങ്ങളുടെ പ്രദേശം ഇടുക്കി ജില്ലയിലെ തോപ്രാംകുടി എന്ന സ്ഥലമാണ് ഇവിടെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലീംങ്ങളും ഇടകലർന്ന് ജീവിക്കുന്ന ഒരു പ്രദേശമാണ് ഒത്തിരിയേറെ നല്ല സ്നേഹത്തോടെയാണ് എല്ലാവരും ഇവിടെ കഴിയുന്നത് പ്രധാനമായും നമ്മൾ ക്രിസ്ത്യാനികളുടെ പള്ളിയിലെ പെരുന്നാളിന്

പള്ളിയിലെ പെരുന്നാളിൻ്റെ പ്രദർശനത്തിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നു ഇതൊക്കെ നമ്മുടെ ഈ പ്രദേശത്തെ പത്രമാധ്യമങ്ങൾ വാർത്തയായി കൊടുക്കാറുണ്ട് നമ്മുടെ ഈ പ്രദേശത്ത് എല്ലാ മതസ്ഥരുടെയും കടകളും ഉണ്ട് അവിടെ നമ്മളെല്ലാവരും ജാതിയോ മതമോ നോക്കാതെ അവരുടെയൊക്കെ കടകളിൽ നിന്ന് നമുക്കാവശ്യമായ സാധനങ്ങൾ വാങ്ങാറുണ്ട് നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂള്കളിൽ എല്ലാ മതത്തിലുമുള്ള കുട്ടികൾ ഒരുമിച്ചിരുന്നാണ് പഠിക്കുന്നത് അതൊക്കെ വളരെ നല്ലയൊരു കാര്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് നമുക്ക് ഒത്തിരി സന്തോഷത്തോടെ ഒത്തുചേരാവുന്ന കുടുംബശ്രീകളും തൊഴിലുറപ്പ് പ്രദേശങ്ങളും അവിടെയൊക്കെ എല്ലാ മതസ്ഥരും ഒരുമിച്ച് ആണ് ജോലി ചെയ്യുന്നതും സംഘങ്ങൾ കൂടുന്നതുമെല്ലാം ഇങ്ങനുള്ള പ്രവർത്തനങ്ങളെല്ലാം നന്നായി നടക്കാറുണ്ട് ഒത്തിരി പത്രമാധ്യമങ്ങളിലേക്ക് ഇവയെല്ലാം വാർത്തകളായി പോവുന്നില്ല എങ്കിൽപോലും നമ്മുടെ ഈ പ്രദേശത്ത് ക്രിസ്ത്യാനികളും ഹിന്ദ്ക്കളും മുസ്ലീംങ്ങളും ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവർ വളരെ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് പരസ്പര ബഹുമാനവും സ്നേഹവും എല്ലാവർക്കും ഉണ്ട് ഇവരോട് ഒത്തുചേർന്ന് മുന്നോട്ട് പോവുന്ന നമ്മുടെ മതനേതാക്കന്മാരും എല്ലാവരും ഒരുമിച്ച് കൊണ്ട് പോകുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ പല അനാഥാലയങ്ങളുമുണ്ട് അവിടെയും എല്ലാ മതത്തിലുള്ള ആൾക്കാരെയും നമ്മുടെ ക്രൈസ്തവ സിസ്റ്റർമാർ ശുശ്രൂഷിക്കുന്നുണ്ട് അതും അവരെ വളരെ സ്നേഹത്തോടെ അവരുടെ മതാചാരങ്ങൾ അനുസരിച്ച് മാനസികരോഗികളായ മക്കളെ നോക്കുന്നിടത്ത് അവർ മരണപ്പെടുമ്പോഴ് അവരുടെ ആചാരമനുസരിച്ച് അവരുടെ വീട്ടുകാർ കൊണ്ടു പോവുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ ശവസംസ്കാരം നടത്തുകയൊക്കെ ച്ചെയ്യാറുണ്ട് നമ്മുടെ ഈ പ്രദേശത്ത് വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന സ്കൂള്കളുമുണ്ട് ആ സ്കൂള്കളിലും അധ്യാപകരും എല്ലാ മതസ്ഥരുമുണ്ട് കുട്ടികളും അങ്ങനെ തന്നെ കുട്ടികളൊരുമിച്ച് കളിക്കുകയും ഒക്കെ ചെയ്യുന്നു എല്ലാവരും വളരെ സന്തോഷമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നതിൽ ഞങ്ങൾ തോപ്രാംകുടിക്കാർ എന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നുണ്ട്